ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെയുള്ളൊരു സ അവസരം എനിക്ക് ലഭിച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പകർത്തുന്ന ചിത്രമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നമുക്കുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും അതായത് അവരുടെ ജീവിതം എങ്ങനെയാണെന്നാണ് കൂടുതലായിട്ടും ഞാൻ പകർത്തുക കാരണന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളത് പകർത്തിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ സംസ്ഥാനവും ബാക്കിയുള്ള സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാരണം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൂടുതലായിട്ടും ദാരിദ്ര്യവും പട്ടിണിയും അവരുടെ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും അവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അപ്പം അതൊന്നും അവ നമ്മുടെ എല്ലാവരിലും നമ്മുടെ ജനങ്ങളിലേക്കൊക്കെ എത്തിക്കുകയാണെങ്കിൽ അവർക്കെന്തെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് ഞാൻ കൂടുതലായിട്ടും അങ്ങനത്തെ ചിത്രങ്ങളായിരിക്കും കൂടുതലായിട്ടും പകർത്തുക അവരുടെ അവസ്ഥയും കാര്യങ്ങളും ഇപ്പോൾ ഓരോ ഓരോ പ്രദേശത്തെയും ഓരോരുത്തരുടെയും അവസ്ഥകളൊക്കെ പരിതാപകരമായിരിക്കും കാരണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽത്തന്നെ പല സ്ഥലങ്ങളിലും വീടില്ലാത്തവരുണ്ട് അവരുടെ ചെറ്റക്കുടിലും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും അവരുടെയെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലിപ്പൊരു ഒരു കറൻറ്റ് പോലും ഇല്ലാത്ത വീടുകളായിരിക്കും അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും പകർത്തുക